പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ് അത് നിയന്ത്രിക്കാമെന്നു വച്ചുകഴിഞ്ഞാല് ഷുഗർ പരമാവധി കുറയ്ക്കുകയാണ് പിന്നെ അരി ആഹാരങ്ങൾ അന്നജം അടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഷുഗർ വരുന്ന ഐറ്റംസ് കുറയ്ക്കുക പിന്നെ നമ്മള് ഉലുവ ഒക്കെ നല്ല ഉലുവ വറുത്ത വെള്ളം കുടിക്കുന്നത് അങ്ങനത്തെ ഉലുവേൻ്റെ അത് നല്ലതാണ് പിന്നെ നമ്മടെ പച്ചക്കറിയിൽ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിക്കുന്ന നല്ലതാണ് മുട്ട അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നമ്മൾ അപ്പോൾ നമ്മൾക്ക് ചപ്പാത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അന്നജം നമ്മൾ ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി ഉള്ള നേരം ചപ്പാത്തി കഴിക്കുന്നത് നന്നായിരിക്കും ചപ്പാത്തി കഴിച്ചാൽ ഒരു അഞ്ചാറ് ചപ്പാത്തി കഴിച്ചിട്ടു കാര്യമില്ല ഒരു രണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ നോർമലാവും പിന്നെ അരി ആഹാരം കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ ബ്ലാക്ക് സീഡ് അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്സ് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് പ്രമേഹത്തെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയുന്നുണ്ട്